ഞാൻ മറ്റെ അവിടെ നിന്നൊരു ബുക്കെടുത്തായിരുന്നു മറ്റെ ഇത് ഇത് കേ ജീ ലൈബ്രറിയല്ലേ ആ അവിടെ നിന്നൊരു ബുക്ക് ഇതിപ്പം ഞാൻ തോമസാണ് അവിടെ നിന്ന് രണ്ടു ദിവസം മുൻപ് ഞാനൊരു ബുക്കെടുത്തായിരുന്നു അതൊരു ഒരു ദിവസമായിരുന്നു അപ്പോൾ എനിക്ക് അതിന് ഒരു ദിവസം മുൻപ് ഛെ തരാൻ പറ്റില്ലായിരുന്നു അത് അപ്പം എങ്ങനെയാണ് ഞാനൊരൂ പ്രൊഡക്ഷൻ ബുക്കാണെടുത്തത് അവിടെ നിന്ന് ഈ ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഫുഡ് പ്രൊഡക്ഷൻ ഇല്ലില്ല അതു ഞാൻ ഒരു ദിവസത്തേക്ക് ഞാനെടുക്കാൻ പറഞ്ഞു വന്നതാണ്

ഇല്ല ഡാമേജൊന്നുമുണ്ടായിട്ടില്ല അപ്പം ഫൈൻ അപ്പം എത്രയാണ് ആ ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫീസൊന്നും കൊടുത്തില്ല അപ്പം ബുക്ക് തന്നിട്ട് കൊടുക്കാമെന്നു പറഞ്ഞു അവിടെ നിന്ന് അജിത് ബാബുവാണ് അജി അജിത് ബാബു ആ ഓക്കെ ഓക്കെ ഒന്നു ചോദിച്ചിട്ട്

ആ ഓക്കെ ഓക്കെ

ആ അതെ അതെ ആ പരിശോധിച്ചോ അപ്പം ഏ അപ്പം എത്ര രൂപയാണ് ഫൈൻ അൻപത് രൂപയോ ആ ആ

അക്കൗണ്ടുണ്ട് അക്കൗണ്ട് നൂറോ ആ ആഹ് ഓക്കെ ഓക്കെ

ആ മാസമായിട്ടെത്രയാണ് ഇരുപത്തഞ്ചോ ഓക്കെ ഓക്കെ ഞാനെന്തായാലും നാളെക്കൊണ്ട് ബുക്കെത്തിച്ചു കൊള്ളാം അങ്ങനെയാണേ ഇപ്പം തന്നെ നോ ഇന്നു തന്നെ നോക്കാം എപ്പോഴാണ് അടയ്ക്കണ്ടേ ആ എന്റെ ആവശ്യം കഴിഞ്ഞു ഞാനിപ്പം ഇപ്പം വരണമെങ്കിൽ നിങ്ങൾ ഫ്രീയാണോ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ശരിയെന്നാൽ ഞാൻ ഞാനിന്ന് ബുക്ക് തന്നെ മ് ഓക്കെ ആയിക്കോളാം ആ ഓക്കെ ഓക്കെ എല്ലാം കൂടി പൈസ ഞാൻ തരാമേ ശരിയെന്നാൽ